യദാർത്ഥ യാഥാർത്ഥവശാൽ പറയുകയാണെങ്കിൽ എൻ്റെ വീട് വരുന്നത് എറണാകുളത്ത് ആണെങ്കിലും ഞാൻ ജനിച്ചത് വളർന്നത് എല്ലാം ഇടുക്കിയിലാണ് അപ്പം എനിക്ക് കൂടുതലും അവടത്തേക്ക് അവിടെ പറയാനുള്ളത് അവിടത്തെ സ്ഥലം ത്തെക്കുറിച്ചായിരിക്കും പറയാനുള്ളത് ഇടുക്കി എന്ന് പറയുമ്പോൾ വളരെ മനോഹാരിത നിറഞ്ഞ ഹരിതാപവും പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഭയങ്കര ഭംഗിയാണ് അവിടം ഭയങ്കരമായ ഒരു പച്ച ഹരിതാപമുള്ള സ്ഥലമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ ആളുകൾ കാണാൻ വരികയും വരുന്ന ഒരു സ്ഥലമാണ് ഒരു ഇടുങ്ങിയ സ്ഥലത്തിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് ഒരു സ്ഥലമാണ് ഇടുക്കി ഇടുക്കിയിൽ കൂടുതൽ പറയുകയാണെങ്കിൽ അവിടെ ഇതൊക്കെ ഇതൊക്കെയാണ് ഇവയെല്ലാമാണ് അവിടത്തെ പ്രത്യേകതയും ഉദാഹരണത്തിന് ഇടുക്കി ഡാംമ് ചെറുതോണി ഡാമ് അവിടെ പിന്നെ രാമക്കൽമേട് മൂന്നാർ ഇതൊക്കെയാണ് എന്നിരുന്നാൽ കൂടിയും അവിടെ ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗി ഓരോ ഭംഗിയാണ് അവിടുത്തെ എല്ലാത്തിനും ഭയങ്കര ഭംഗിയാണ് മൂന്നാറെന്ന സ്ഥലം ഇടുക്കിയിൽ നിന്നും കുറച്ച് അകലെയാണെങ്കിലും അവിടെ വളരെ അധികം ഒരുപാട് ആൾക്കാർ ചെല്ലുകയും തണുപ്പാണ് അവിടുത്തെ എപ്പോഴും എപ്പോഴും ഒരേ കാലാവസ്ഥയാണ് അവിടെ എപ്പോഴും തണുപ്പാണ് അവിടെ ഭയങ്കര ഭംഗിയാണ് മഞ്ഞൊക്കെ എപ്പോഴും ഉണ്ട് ഉഷ്ണകാലത്ത് നഗരങ്ങളിൽ നിന്ന് ആൾക്കാർ മൂന്നാറിലോട്ട് പോവാറുണ്ട് ഭയങ്കരം സമാധാനപരമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പച്ചക്കറി തോട്ടങ്ങൾ തന്നെയാണെങ്കിലും തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ പച്ചക്കറി തോട്ടങ്ങളും എല്ലാം നമുക്ക് ഇടുക്കി മൂന്നാർ ഇടുക്കി മൂന്നാറിലും കാണാൻ സാധിക്കും പച്ചക്കറി തോട്ടങ്ങൾ അവിടെ നിന്നും നല്ല നല്ല പച്ചക്കറികൾ ജൈവകൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ മേടിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ വേറൊരു സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയിലെ

ഇടുക്കിയിൽ ഇടുക്കിയിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് കാൽവരി മൗണ്ട് അത് എൻ്റെ വീടിനോട് തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അറിയാം ആ കൽവരി മൗണ്ടെന്ന് പറയുന്ന സ്ഥലം ഉദ്ദേശിക്കുന്നത് ഇടുക്കി ഡാമിൽ വെള്ളം കിടക്കുന്നതാണ് മലയുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഇടുക്കി ഡാമിൽ വെള്ളം ഒരുപാട് കിടക്കുന്നതും അതിൻ്റെ ആകൃതിയും കടൽ പോലെ കിടക്കുന്നത് വെള്ളവും ആണ് എപ്പോഴും കൗതുകം എന്നുമെന്നും എന്നും കാണുന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും ഓരോ തവണ കാണുമ്പോഴും കൗതുകം ഉദിക്കുന്ന ഒരു ഇതാണ് ഇടുക്കി ഡാമ് വെള്ളം കിടക്കുന്നത് ആണ് എല്ലാവരും അവിടെ വരും വരും വരും ഒരുപാട് വിനോദ സഞ്ചാരികൾ ഒരുപാട് കൂടുതലാണ് അവിടെ എനിക്ക് വളരെ അധികം പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് പിന്നീട് വരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് വാഗമണ്ണാണ് അവിടെ ഒരുപാട് ഇതുണ്ട് പൈൻ വനങ്ങളും എല്ലാം ഉണ്ട് പൈൻ വനങ്ങളൾ അതുപോലെ തന്നെ പല പല ഇതും അവിടെ ഉണ്ട് പിന്നീട് വരുന്നത്

പിന്നീട് ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇതാണ് പിന്നീട് ഇടുക്കിയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ കൂടുതലാൾക്കാർ ഇടുക്കിയിൽ നിന്നും പോകുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളം തൊട്ടടുത്ത് കിടക്കുന്ന നഗരമായത് കൊണ്ടും അവിടം കാണാൻ ഒരുപാട് സ്ഥലങ്ങളുള്ളത് കൊണ്ടും അവിടം ഭയങ്കര ഭംഗിയാണ് ഒരു തിങ്ങി ഈ ഉള്ളിലോട്ട് താമസിക്കുന്നവർ എപ്പോഴും കുറച്ച് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുമെന്ന് പറയുന്നതിൽ തെറ്റ് ഞാൻ പറയില്ല കാരണം ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി അവിടെ എല്ലാം കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ സാങ്കേതിക വിദ്യകളുമെല്ലാം കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അത് എറണാകുളത്ത് തന്നെയാണ് അതിൽ ഇപ്പം പുതിയ വികസനമായ മെട്രോ വാട്ടർ വാട്ടർ മെട്രോ എല്ലാം ഉണ്ട് അപ്പം ഇടുക്കിയിൽ നിന്നും ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവർ പുതിയ പുതിയ അവിടെ ഒരു ഓരോ സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും അപ്പോ വലിയ വില വിലക്കറവായാലും തുണികളെടുക്കുന്നതിനൊക്കെ വിലറവിലൊക്കെ എടുക്കാനായിട്ട് ഉള്ളത് ആൾക്കാർ അങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നീട് ആൾക്കാർ ഒന്ന് മാറി ചിന്തിച്ചാൽ പോകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് പിന്നീട് ഒരു മാറി ചിന്തിച്ചാൽ പോകുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് കോട്ടയത്തേക്കാണ് കോട്ടയത്ത് ഈ പറയുന്നത് പോലെ പല പല സ്ഥലങ്ങളും ഞങ്ങളുണ്ട് കോട്ടയത്ത് സാംസ്കാരിക നഗരമെന്ന് പറയുന്നു അവിടെ വളരെ അധികം ഇമ്പ്രൂവ്ഡായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ കോട്ടയത്ത് അവിടത്തെ പിന്നെ ആലപ്പുഴയൊക്കെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളാണ് എന്ന് വച്ചാൽ അവിടെ ഓരോ സാധനങ്ങൾ മേടിക്കാനും മേടിക്കാൻ തന്നെ അല്ല ഫ്രഷായിട്ടുള്ള മീൻ മീനുകൾ കാണാനും അവ രുചിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലം എന്ന് പറയുന്ന ആലപ്പുഴയാണ് വളരെ അ അധികം ആൾക്കാർ കേരളത്തിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നവരുണ്ട് പിന്നീട് വരുന്നത് പിന്നീട് ആലപ്പുഴയിൽ വെള്ളം തണ്ണീർ മുക്കം ബണ്ടും ഒക്കെ നമുക്ക് നമുക്ക് കാണാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണ് കൂടുതലും ഇടുക്കിയിൽ നിന്നും ആൾക്കാർ പോയി കാണുന്നത് പക്ഷേ എന്തന്നൊക്കെ പറഞ്ഞാലും ഇടുക്കിയും ഇടുക്കിക്ക് ഇടുക്കിയുടേതായ തനതായ ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇടുക്കിക്ക് തന്നെ അല്ല വേറെ സംസ്ഥാനങ്ങളിലാണെങ്കിലും അവയൊക്കെ അവയുടെ അതതിൻ്റേതായ തനതായ ഭംഗിയുണ്ട് എറകുളത്താണേലും മെട്രോ മെട്രോ എല്ലാം കൂടി വന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും സാങ്കേതിക പരമായി എപ്പോഴും ചെന്നെത്താൻ പറ്റുന്നോര് സ്ഥലം

വരുന്ന ഒരു സ്ഥലം എവിടെ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ഒക്കെ പിള്ളേർ സ്കൂളുകളിൽ നിന്നൊക്കെ പോകുന്നത്കൊണ്ട് കന്യാകുമാരി തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകുകയാണെങ്കിൽ കൂടുതലും അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് കാരണം പിള്ളേർക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായത് കൊണ്ട് തന്നെ അവിടെ കുട്ടികൾക്ക് കുറേ പഠിക്കാനുള്ള പരമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പാർലമെൻ്റ് എല്ലാം മുഖ്യമന്ത്രിൻ്റെ ഇതായി മുഖ്യമന്ത്രിയും എല്ലാം അവിടെയാണ് എന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംഭവങ്ങളും തല തലസ്ഥാനത്ത് ഉണ്ട് അതായത് തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ കൂടുതലും ആൾക്കാർ അങ്ങോട്ട് പോകുന്നതായി കണ്ടു വരുന്നുണ്ട് ആൾക്കാർ അല്ല കുട്ടികൾ കുട്ടികൾ അങ്ങോട്ട് പോയി കണ്ടു വരുന്നുണ്ട്